ഈ ജല മലിനീകരണം കാരണം ഉണ്ടായ മാറ്റങ്ങൾന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പം നമ്മുടെ നാടെന്ന് പറയുന്നത് ഇപ്പം മലിനീകരണങ്ങളും മാത്രമുള്ള ഒരു നാടാണ് ജലമലിനീകരണം വായുമലിനീകരണം അങ്ങനെ നൂറുകൂട്ടം മലിനീകരണങ്ങൾക്കിടയിലാണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് അതു കൂടുതലും ഈ മ ഇതെല്ലാം മലിനീകരണം ആക്കുന്നതും നമ്മൾ തന്നെയാണ് ഈ പരിസ്ഥിതിയെ മലിനീകരിക്കുന്നത് അതായത് ഇങ്ങനെ വൃത്തികേടാക്കുന്നതും നമ്മൾ തന്നെയാണ് മനുഷ്യൻ്റെ പ്രവർത്തികൾ ആണെങ്കിൽ പോലും അത് വീണ്ടും ഒരു ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് മനുഷ്യർക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ഭൂമി ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി അതായത് ഈ ജലമലിനീകരണം കാരണം നമ്മളിപ്പം ആ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് അവരുടേതും ശാരീരികമായ അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കുന്നു ഇതിനെല്ലാം മൊട്ടയിട്ട് മൊട്ടിട്ട് എന്താകുന്നു കൊതുകുകൾ വളർന്നു ഡെങ്കിപ്പനി ചിക്കൻ പോക്സ് അങ്ങനെ പല പല അസുഖങ്ങളിലേക്ക് വരെ വഴി എത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെന്താ പറയാനുള്ളത് പിന്നെ പറയാവുന്നതെന്ന് പറയുന്നത് ഇത് ഈ വെള്ളം എല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം ഒഴുകിച്ചെന്നു ആ വെള്ളത്തിൽ കലർന്നത് അത് ഉപയോഗിക്കുന്നവരുടെ മേത്ത് ആ വെള്ളം ഉപയോഗിക്കുന്നവരെ അതിൽ കുളിക്കാൻ ഒക്കെ ഇറങ്ങുന്നവരെ മേത്ത് അവർക്ക് അവരുടേതായ അസുഖങ്ങളെല്ലാം വരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ചൊറി അതും ഇതും ഒക്കെ വരുന്നു പിന്നെന്താണ് ശരീരം മൊത്തം ചൊറിച്ചിലും പാടുകളും ഒക്കെ ആവുന്നു പിന്നിതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ശർദ്ദി അങ്ങനെ വയറിളക്കം അങ്ങനെ അസുഖങ്ങളൊക്കെ പിടിക്കുന്നു പിന്നെന്താണ് പറയാ അവരെല്ലാവർക്കും ഈയൊരു വെള്ളം കൊണ്ട് ഇങ്ങനെ മലിനീകരണം ആയിട്ടുള്ള ജലം ഉപയോഗിക്കുന്നവർക്ക് അതെന്താ അവരുടെ എന്താണ് അവരുടെയൊരു അവർക്കന്നെ അത് വിപത്തായിട്ട് മാറുവാണ് ചെയ്യുന്നത്